അയ്യോ ചേട്ടാ ഇത് പൊറോട്ടയാണല്ലോ ഞാൻ ചപ്പാത്തിക്കായിരുന്നു ഓർഡർ ചെയ്തത് അല്ല ഞാൻ ചപ്പാത്തിക്കാണ് പറഞ്ഞത് ആ ആറ് പീസ് ചപ്പാത്തിയാണ് ആ ഞാൻ പറഞ്ഞത് പൊറോട്ട വേണ്ട നമ്മൾ പൊറോട്ട കഴിക്കാറില്ല ചപ്പാത്തി ആയിരുന്നു നമുക്ക് വേണ്ടത് ഇനിയിപ്പോൾ എന്താ ചെയ്യുക അല്ല ഞാൻ കറക്റ്റ് ആയിട്ട് പറഞ്ഞിട്ടുണ്ടായിരുന്നു ആറ് പീസ് ചപ്പാത്തിയും പിന്നെ ഒരു ചിക്കൻ കറിയും ആണ് ഞാൻ ഓർഡർ ചെയ്തത് ഓ ഒക്കെ ആ ആ മാറ്റി കൊണ്ടു തന്നാൽ മതി പതിനഞ്ച് മിനിറ്റ്സിനുള്ളിൽ കൊണ്ടു വന്നാൽ മതി ആ ആ പൊറോട്ട വേണ്ടാഞ്ഞിട്ടാണ് പൊറോട്ട അധികം കഴിക്കാറില്ല അതുകൊണ്ടാണ് ചപ്പാത്തിക്ക് ഓർഡർ ചെയ്തത് ഓക്കെ ഓക്കെ താങ്ക് യൂ